പട്ടിക്ക് ആരോഗ്യത്തിന് ആണെങ്കിൽ പട്ടിക്കു ഞങ്ങൾ നല്ല ചിക്കനും അതും ഇതും ഒക്കെ കൊടുത്തു നല്ല ആരോഗ്യത്തോടെ നോക്കി കഴിഞ്ഞാൽ നല്ല ആൾക്കാർ വല്ല കള്ളന്മാർ വന്ന നല്ല ആരോഗ്യത്തോടെ അത് കുറയ്ക്കും പൂച്ചയാണെങ്കിൽ ഞങ്ങൾക്ക് അതൊരു കൂട്ടു തന്നെ അതു നല്ല പൂച്ച എലിയെ പിടിക്കും പല്ലിയെ എന്തെങ്കിലും പ പക്ഷികളൊക്കെ ഇങ്ങനെ വീട്ടിനാവശ്യമല്ലാത്ത വന്നു കഴിഞ്ഞാൽ ഒരു പാമ്പു തന്നെ വന്നു കഴിഞ്ഞാൽ അത് ഓടിച്ചെന്ന് അതിനെ ശരിയാക്കി അതിനെ കടിച്ചു മാന്തി കൊന്നിട്ടെ അതു വരാറുള്ളൂ പൂച്ച അങ്ങനൊരുപകാരമുണ്ട് ആഹാരം കൊടുത്താലും പട്ടിക്ക് പട്ടിയെ കൊണ്ട് ഉപകാരമുണ്ട് കുരയ്ക്കും പിന്നെ കോഴി കോഴിയാണെങ്കിൽ ചോളം അതിനു നല്ല നല്ല ഫുഡ്ഡുകൾ ഗോതമ്പൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അതിനു നല്ല ആരോഗ്യം വരും അതു നല്ല മുട്ട തരും ഞങ്ങൾക്ക് മുയലാണെങ്കിൽ അതിനു ക്യാരറ്റാണ് അതിന് ഏറ്റവും നല്ല ഇഷ്ടമുള്ള ആഹാരം ക്യാരറ്റാണെങ്കിൽ അതിനു വളരെ ഇഷ്ടം പിന്നെ ഫുഡ് ഞങ്ങളുടെ ഫുഡ്ഡും അതു തിന്നും ഞങ്ങൾക്ക് പിന്നെ ഞങ്ങളുടെ വീട്ടിൽ സൗകര്യമല്ലാത്തതു കൊണ്ട് വളർത്തില്ലാ പക്ഷെ എനിക്ക് മുയലിനെയും പു ഈ ഐറ്റംസൊക്കെ എനിക്ക് വളർത്താൻ വളരെ ഇഷ്ടമാണ് പശു ആണെങ്കിൽ ഞങ്ങൾക്കു നല്ല പാൽ കിട്ടും അതിനു നല്ല അതിൻ്റേതായ രീതിയിൽ നല്ല എന്തോന്ന് തേങ്ങാ പിണ്ണാക്ക് ജേഴ്സി പിണ്ണാക്ക് പിന്നെ പല പിണ്ണാക്ക് അതും ഇതൊക്കെ അതിനു കൊടുത്തു കഴിഞ്ഞാൽ നല്ല പാലു കിട്ടും പട്ടി കുരയ്ക്കും പൂച്ച ആണെങ്കിൽ അതിൻ്റേതായിട്ടുള്ള ഇതു ഞങ്ങൾക്കു ചെയ്യും കോഴി മുട്ട തരും മുയൽ ഞങ്ങൾക്ക് ഞങ്ങൾ കഴിക്കാറില്ല ചിലർ അതിൻ്റെ ഇറച്ചി കഴിക്കാറുണ്ട് ഞങ്ങൾ കഴിക്കാറില്ല അതിനു ഞങ്ങൾ വളർത്താമെങ്കിൽ അതിനു കൊടുക്കേണ്ട ഏറ്റവും പ്രധാന ആഹാരം ക്യാരറ്റാണ് അതാണ് അതിൻ്റെ ആഹാരം ഓക്കേ ആട് ആട് ഇതുപോലെ തന്നെ അതിനു ഞങ്ങൾ പിണ്ണാക്കൊക്കെ തന്നെ കൊടുക്കാനുള്ളത് അതു നല്ല പാലൊക്കെ തരും ആട് നല്ല ഒരു സ്നേഹമുള്ള ഇതാണ് അതിനു ഞങ്ങൾ കൊടുക്കാറുണ്ട് പശുവിനും അതിനും ഒരുപോലെതന്നെ പില്ല് നല്ല തൊട്ടാവാടിയെന്നു പറഞ്ഞാൽ ഒരു സാധനമുണ്ട് അത് ആടിനു വളരെ ഇഷ്ടമാണ് അത് എവിടെയെങ്കിലും തപ്പിയെടുത്തു കൊണ്ടു വന്ന് അതു കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ പ്ലാവിൻ്റെ തോല് അതും ആടിനു വളരെ ഇഷ്ടമാണ് അത് അതൊക്കെ അതു കഴിക്കും പിന്നെ അതൊക്കെ വലിയ ഇഷ്ടമാണ് അതിനു ഞാൻ ആടിനെ വളർത്തിയിട്ടുണ്ട് കോഴിയെ വളർത്തിയിട്ടുണ്ട് പട്ടിയുണ്ടെനിക്ക് പൂച്ചയെ വളർത്തിയിട്ടുണ്ട് മുയലിനെ ഞാൻ വളർത്തിയിട്ടില്ല മുയലിനെ വളർത്തിയ വീട്ടിൽ ഞാൻ ചെന്നു മു അതിൻ്റെ കൂട്ടിൽ നോക്കി എടുത്തിട്ടുണ്ട് അതിൻ്റെ വായിൽ എപ്പോഴും നോക്കിയാലും ക്യാരറ്റേ ഉള്ളൂ അതിന് ഏറ്റവും ഇഷ്ടം ക്യാരറ്റാണ് അതിൻ്റെ ആരോഗ്യവും അതാണ് നല്ല ഭംഗിയാണ് അതിനെ കാണാൻ തന്നെ നല്ല ക ഒരു മഞ്ഞ വലിയ കണ്ണും അതിൻ്റെ നല്ല രസമാണ് അതു കണ്ടു കൊണ്ടു നിൽക്കാൻ നല്ല രസമാണ് മുയൽ നല്ലതാണ് അതിന് ഇഷ്ടമാണ് ഓക്കേ